സമയം ഇല്ലാത്തപ്പോഴും ചേരുവകൾ കുറവ് ഉള്ളപ്പോഴും ഞാനിപ്പോൾ ഉച്ചക്ക് ഒക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ചോറ് അരി എന്തായാലും ഉണ്ടാകുമല്ലോ എല്ലാവീട്ടിലും അപ്പം ചോറും ചമ്മന്തിയും പിന്നെ അച്ചാറും കൂട്ടി കഴിക്കും പിന്നെ രാവിലെ ഒക്കെ ആണെങ്കിൽ ബ്രേക്ഫാസ്റ്റ് ആയിട്ട് ചേരുവകളൊക്കെ കുറവാണെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതാണ് കഴിക്കുക അല്ലെങ്കിൽ മുട്ട പുഴുങ്ങുകയോ ബുൾസയ് ആക്കുകയോ ചെയ്യും പിന്നെ വേറെ ഇപ്പോൾ ഒന്നും ചേരുവകൾ കുറവാണെങ്കിൽ ഇപ്പം ഓട്സ് ഉണ്ടെങ്കിൽ ഓട്സ് കാച്ചി കുടിക്കും അല്ലെങ്കിൽ ഇപ്പം വൈകുന്നേരങ്ങളിൽ ഒക്കെ ആണെങ്കിൽ പഴം ഇരിപ്പുണ്ടെങ്കിൽ പഴം വാട്ടിയത് കഴിക്കും അല്ലെങ്കിൽ പഴം പയം പഴം പുഴുങ്ങി കഴിക്കും അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഉപയോഗിക്കാറ് പിന്നെ അതൊക്കെ നല്ല ഒരു ഇപ്പം മറ്റുള്ള ഭക്ഷണ ഭക്ഷണങ്ങളിലെക്കാൾ കൂടുതൽ ഒരു നല്ല നമുക്ക് പോഷക ഗുണം കിട്ടുന്നതും മുട്ടയും അതുപോലെ പ പഴം ഒക്കെ തന്നെ ആണല്ലോ അപ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അത് കൊടുക്കാം നമുക്കും അത് കഴിക്കാം ശരീരത്തിനൊരു ഒരു മാറ്റമൊന്നും ഉണ്ടാകുകയില്ല നമുക്ക് ശരീരത്തിൽ ക്ഷീണമോ അതൊന്നും അനുഭവപ്പെടില്ല നമ്മൾ വയ വയറ് നിറഞ്ഞാൽ മതിയല്ലോ